ഞാൻ പഠിച്ച സ്കൂളിലൊക്കെ ചെറിയ ചെറിയ ലൈബ്രറികൾ ഉണ്ടായിരുന്നു അതിൽ നമ്മുക്കിഷ്ടം പോലെ ബുക്കുകൾ നമ്മുടെയിഷ്ടത്തിന് ഒത്തിരിയേറെ ബുക്കുകൾ നമ്മുക്ക് വായിക്കാൻ ചെറുകഥകൾ എന്തുവേണമെങ്കിലും ഇപ്പോൾ എനിക്ക് ഓർമ്മയിലിരിക്കുന്നത് എന്നു വച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കഥാകൃത്തുക്കളുടെ ബുക്കുകളാണ് അതിലിപ്പം മാധവികുട്ടിയുടെ ഉണ്ട് ബഷീറിൻ്റെ ഉണ്ട് പിന്നെ പണിക്കരുടെ ഉണ്ട് ബെന്യാമിൻ്റെ ബെന്യാമിൻ്റെ ബുക്ക് എന്നു വച്ചിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് ടെൻത്തിൽ പഠിക്കുമ്പോൾ പഠിക്കാൻ ഉണ്ടായിരുന്നൊരു പാഠഭാഗമായിരുന്നു ആ ഒരു ബെയ്സിൽ ബെന്യാമിൻ്റെ ആടു ജീവിതം മുഴുവനും വായിച്ച ഒരു വ്യക്തിയാണ് വളരെ മനോഹരമായി ഒരു അതൊരു കെട്ടുക്കഥയല്ല നടന്നൊരു കഥയാണ് ബെന്യാമിൻ്റെ ആടു ജീവിതത്തിൽ കാണിച്ചിരിക്കുന്നത് ഒരു വ്യക്തി ഗൾഫിൽ പോയിട്ട് നേരിടേണ്ടി വന്ന കഷ്ടപ്പാടുകളും അവിടെ നിന്ന് അവരുടെ ഭാര്യയ്ക്ക് എഴുതുന്ന ലെറ്ററും വളരെ നല്ല പ്രമേയത്തോടെ എഴുതിയ ഒരു കഥ അതിന്നും മനസ്സിൽ എൻ്റെ മാത്രം ആയിരിക്കില്ല ഓരോ കുട്ടികളുടെ മനസ്സിലും നിറഞ്ഞു നിൽക്കുന്നൊരു കഥ നമ്മൾ പഠിച്ച ക്ലാസ് ഓർക്കുന്നത് ഞാൻ ഞാനിന്നു ആ ആ ഒരു ക്ലാസ്സിലാണ് ആ ഒരു വാക്ക് പഠിച്ചതെന്ന് ഓർക്കാൻ അതേപോലത്തെ കഥകൾ നമ്മളെ സഹായിക്കുന്നു അപ്പം അവിടെ നിന്ന് ലൈബ്രറിയിൽ നിന്നു എടുത്താണ് ഞങ്ങളത് വായിച്ചത് വളരെ നല്ലൊരു കഥ ഇന്നും ഹൃദയസ്പർശിയായി മനസ്സിൽ ഉള്ളൊരു കഥയായിരുന്നു ബെന്യാമിൻ്റെ ആടുജീവിതം അതേപോലെത്തന്നെ ബഷീറിൻ്റെ ബഷീറിൻ്റെ ഒത്തിരി കഥകളുണ്ട് നമ്മൾ ചെറുപ്പം തൊട്ടേ ബഷീറിൻ്റെ ഓരോ കഥകളും നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പം തൊട്ട് ഓരോ കഥകളും വായിച്ചും കേട്ടുമൊക്കെയാണ് നമ്മൾ വളർന്നത് അതേപോലെ മാധവിക്കുട്ടിയുടെ നീർമാതളം എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു കഥയാണ് അതെ ഒത്തിരിയൊത്തിരി ആൾക്കാരുടെ കഥകളുണ്ട് അപ്പം നമ്മൾ വിരലിൽ കുറച്ച് ചിലത് മാത്രമായിരിക്കും നമ്മുടെ മനസ്സിൽ ഇടം നേടുക അതിൽ പെട്ട എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാകൃത്തായിരുന്നു അതേപോലെതന്നെ ഷെയ്ക്സ്പിയറിൻ്റെ ഭയങ്കര ഇഷ്ടമാണെനിക്ക് ചേതൻ ഭഗത് ഹാഫ് ഗേൾ ഫ്രണ്ട് വളരെ നല്ല സ്റ്റോറിയാണ് അത് റിയൽ സ്റ്റോറിയാണ് അതൊക്കെയാണ് എൻ്റെ കുട്ടിക്കാലത്ത് എന്നു പറയാൻ അത്ര വലിയ സ്റ്റോറിയൊന്നും വായിച്ചിട്ടില്ല എന്നാലും ഒരു പത്തിലൊക്കെ എത്തിയപ്പോൾ ആ ഒരു സ്റ്റോറിയൊക്കയാണ് ഞാൻ വായിച്ചത്